നമ്മുടെ ശേഖരം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എപ്പോഴും വിലപ്പെട്ട ഒന്നുതന്നെയാണ് അതിൽ നിന്ന് ഒരു സാധനം വിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രയാസം ഏറിയ ഒരു സാധനമാണ് പിന്നെ അത് വിൽക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനങ്ങളെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും ആണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശേഖരത്തെ ശേഖരം നമുക്ക് വളരെ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഓരോ വസ്തുക്കൾ ആയിരിക്കും അത് അത് വിൽക്കാൻ വിൽക്കുമ്പോൾ അതിൻറെ മൂല്യം കണക്കാക്കുക അത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്കത് ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന സമയം അങ്ങനെ എല്ലാ കാര്യങ്ങളും മൂല്യം കണക്കാക്കുമ്പോൾ അതിൽ പെടും രണ്ടാമത് ഈ ശേഖരങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോരോ ശേഖരങ്ങൾ ആയിരിക്കും ചിലത് അത്രയും വിലപിടിപ്പുള്ള കുറച്ച് ശേഖരങ്ങൾ ആയിരിക്കും അത്തരം ശേഖരങ്ങൾ കൈമാറുക എന്ന് പറയുമ്പോൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ അതാ കൈമാറുന്ന ആൾ അതെങ്ങനെ സൂക്ഷിക്കും മുതലായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം ഈ കൈമാറുന്ന സാധനങ്ങൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുമോ അതോ സൂക്ഷിക്കുമോ അത്തരം കാര്യങ്ങൾ ഇതിന് എന്ത് വില കണക്കാക്കണം മുതലായ തീരുമാനങ്ങളെടുക്കുന്ന എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോ നമുക്ക് ഒരേ പോലത്തെ രണ്ടുമൂന്ന് ശേഖരങ്ങൾ വന്നു അത് കൈമാറുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോ ഒരു സ്റ്റേ സ്റ്റാമ്പ് ശേഖരം തന്നെയാണെങ്കിൽ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കയ്യിലുള്ള ഒരുപോലത്തെ രണ്ടു മൂന്നെണ്ണം ഉള്ളത് കൊടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല പക്ഷെ വളരെ അപൂർവ്വമായിട്ട് ലഭിച്ച ഒരു സാധനമാണ് അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്